ആ നമ്മുടെ വയനാട്ടിൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നിരവധി വിനോദസഞ്ചാര പരിപാടികൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒക്കെയുണ്ട് അതായത് ഇപ്പോൾ പുൽപ്പള്ളിയിൽ തന്നെയാണെങ്കിൽ പാർക്ക് ഉണ്ട് അതേ സെയിം പഴശ്ശീൻ്റെ പാർക്ക് മാനന്തവാടി ഉണ്ട് അതേപോലെ പൂക്കോട് കുറുവ പിന്നെ നമുക്ക് കുറുമലക്കോട്ട മല അങ്ങനെ കുറേ ഉണ്ട് നമുക്ക് കുറുമലക്കോട്ടയൊന്നും പോകണമെങ്കിൾ നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ പൂക്കോട് തടാകം അങ്ങനെയുള്ള നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ പണം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നിശ്ചിത തുക കൊടുത്താലെ നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിപ്പിക്കത്തുള്ളൂ അതേപോലെ ബോട്ടിങ്ങിനൊക്കെയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് അവർ ഈടാക്കുന്നുണ്ട്